ഹലോ മദ്ബി അല്ലെ മദ്ബി ഇത് നിങ്ങളുടെ മലപ്പുറത്തെ ഷോപ്പ് അല്ലെ പിന്നെ എനിക്ക് നാളത്തേയ്ക്കൊരു മൻ മന്തി വേണം മന്തി മന്തി മന്തിയില്ലെ അവിടെ ഏതൊക്കെ ഐറ്റംസ്സ് ഉണ്ട് ഏതൊക്കെ അവിടെ മട്ടനും ചിക്കനും പിന്നെ ബീഫില്ലെ

എന്നാൽ കുറച്ച് എരുവ് കുറച്ച് ഒരു ആവറേജ് മതി കെട്ടോ ആ അത് മതി രണ്ട് ബി രണ്ട് ഐറ്റം മന്തി ഫുള്ള് ഒരു നാളെ വൈകുന്നേരം ഒരു ഏഴ് മണി ഒക്കെ ആകുമ്പത്തേന് ഡെലിവെറി ആവില്ലെ ആ ഓക്കെ ഓക്കെ നാളെ വൈകുന്നേരത്തേയ്ക്ക്